ഇപ്പോഴെന്നാൽ ഇന്ത്യയിലെ ഗതാഗത സംവിധാനം എങ്ങനെയുള്ളതാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗതാഗത സംവിധാനം കാര്യങ്ങളൊക്കെ വന്നതാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോദി പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ബാംഗ്ലൂർ മൈസൂർ എൻ എച്ച് ഹൈവെയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആറ് വരി പാതയാണ് വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് വഴി മാർഗം അല്ലാണ്ട് നമുക്ക് പല രീതിയിലുള്ള ഗതാഗതം നമുക്ക് ഇപ്പോൾ സൗകര്യമാ ണ് ഇപ്പോൾ നമുക്ക് അതായത് നമുക്ക് ഫ്ലൈറ്റ് വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോവാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് കോഴിക്കോട് തന്നെ കരിപ്പൂർ വിമാനത്താവളം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെയിൽ വേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റെയിൽവേയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത് ക്യാഷ് കുറവൊക്കെ റെയിൽവേയാണ് നമുക്ക് റോഡ് വഴി പോകുന്നതിനെക്കാളൊക്കെ കൂടുതലും നല്ലത് നമുക്ക് റെയിൽ വേ വഴി പോകുന്നതാണ് പക്ഷെ സമയവും നമുക്ക് ലാഭമാണ് ക്യാഷും നമുക്ക് ലാഭമാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് തന്നെ ഒരു ഗതാഗത സംവിധമാണ് സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്